അപ്പം ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുവാനാണെങ്കിൽ ഒത്തിരിയുണ്ടപ്പം ഞാൻ താമസിക്കുന്ന കണയങ്കവയലെന്നു പറഞ്ഞ ഗ്രാമത്തിലാണപ്പം അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ക്രിസ്ത്യനാണ് അത് ക്രിസ്ത്യാനി അത് ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ക്രിസ്ത്യാനിയാണ് അപ്പം അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ പള്ളിയാണ് അത് പള്ളിയിൽ മെയിനായിട്ട് സെൻ്റ് മേരീസ് ചർച്ച് അതായത് പെരുവന്താനം സൊറോണയുടെ അണ്ടറിൽ വരുന്ന ചർച്ചാണ് സെൻ്റ് മേരീസ് ചർച്ച് കണയങ്കവയൽ അപ്പം കണയങ്കവയലെന്നു പറഞ്ഞാൽ ഒരുൾഗ്രാമമാണപ്പം അവിടുത്തെ അതായത് ഒത്തിരിയേറെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരിൽ നിന്ന് ക്രിസ്ത്യൻസാണ് ഹിന്ദുക്കൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ഉണ്ട് പക്ഷെ കമ്പാരിറ്റീവില് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻസാണ് മെയിനായിട്ടുള്ളത് അപ്പം അവിടുത്തെ മെയിൻ ആഘോഷങ്ങളിലൊന്നാണ് പെരുന്നാൾ അപ്പോൾ പെരുന്നാളെന്നു പറയുന്ന കണങ്കവയൽ എൻ്റെ ഇടവകയിൽ പെരുന്നാളെന്നു വെച്ചാൽ മെയിനായിട്ട് നടത്തുന്നത് ജനുവരി അവസാന മാസം ജനുവരി അവസാന തീയ്യതികളിൽ അല്ലെങ്കിൽ ഫെബ്രുവരി തുടക്കം അപ്പം ഈ ഒരു ദിവസങ്ങളാണ് മെയിനായിട്ട് ഇത് നടത്തുന്നത് അപ്പം ഇതെന്നു വച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളെന്നു വച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പ്രദേശവാസികൾ ഇത് നാട്ടുകാർ വെച്ചു നോക്കുകയാണെങ്കിൽ എറ്റവും സന്തോഷത്തിൻ്റെ ഇതിനുള്ള നാളാണ് പെരുന്നാളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളിപ്പോൾ പ്രസിദ്യന്തിമാർ പ്രസിദ്യന്തിമാരിൽ നിന്ന് പൈസ അതായത് ഈ പെരുന്നാൾ നടത്താൻ അവർ സന്മസ്സുള്ള ആൾക്കാരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചിട്ട് അവരുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാണ് മെയിനായിട്ട് പെരുന്നാളെന്ന് ഉള്ളത് അപ്പോൾ ഏകദേശം പത്ത് ഇരുന്നൂറോളം പ്രസിദ്യന്തിമാർ എല്ലാ വർഷവും മെയിനായിട്ട് പെരുന്നാൾ നടത്താനായിട്ടിവിടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പം പെരുന്നാൾ നടത്തിയപ്പം മെയിനായിട്ട് നമ്മൾക്കുള്ള നമ്മുടെ ആചാരം അനുസരിച്ച് പെരുന്നാൽ വെച്ച് ഈ കുർബാനകൾ കുർബാനകളെന്ന് ഏതൊരു പെരുന്നാളിൻ്റെയും വിശുദ്ധ ക്രിസ്ത്യന് മെയിനാണ് വിശുദ്ധ കുർബാനകൾ കുർബാനകളിൽ നിന്ന് നമ്മൾ സംഘടിപ്പിക്കും നല്ല രീതിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നല്ല വിപുലമായ രീതിയിൽ ഉള്ള ബഡ്ജറ്റ് വെച്ചാൽ നമ്മൾ നല്ല രീതിയിലാണ് പെരുന്നാൾ അപ്പം പ്രധാനമായിട്ട് കുർബാനകളപ്പം കുർബാനകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നമ്മൾ അതായത് മറ്റിടവകളിൽ നിന്നുള്ള അച്ഛന്മാർ അതായത് പുരോഹിതൻമാരെയൊക്കെ വിളിച്ച് വിളിച്ച് അങ്ങനെ നമ്മൾ കുർബാന നടത്തുന്നു മെയിനായിട്ട് കുർബാനകൾ നടത്തുന്നുണ്ട് പിന്നെ നേർച്ചകൾ നേർച്ച കാഴ്ചകൾ നമ്മളുടെ സമർപ്പിക്കാനുള്ള ഇതുണ്ട് നേർച്ചകളപ്പം നേർച്ചകളിപ്പം നമ്മൾ ഉണ്ട് അപ്പം പണമായിട്ടെന്ന് അല്ലാതെ നമ്മളെ കയ്യിലുള്ള സാധനങ്ങളൊക്കെയായിട്ട് നമുക്ക് നേർച്ചകൾ കൊടുക്കാനായിട്ട് സാധിക്കും നേർച്ചകൾ കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും പിന്നെ കഴിന്നെടുക്കുന്ന് പറയുന്നത് കഴിന്നെടുക്കുന്ന നമ്മുടെ ആരാചാരം എന്ന രീതിയിലാണ് നമ്മൾ കഴിന്ന് പറയുന്ന വസ്തുവുണ്ട് കഴിന്ന് പറയുന്നൊരു നേർച്ചയായിട്ട് നമ്മൾ കഴിന്ന് എടുക്കുന്നപ്പോൾ കുടുംബക്കാരും അവരുടെ ആവശ്യങ്ങൾ സാധിക്കാനായിട്ട് കഴിന്നെടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ് പ്രദിക്ഷിണം പ്രദിക്ഷിണം നോക്കി നമ്മളവിടെ ഇത് കൃതജ്ഞതപോലെ പ്രാർത്ഥന പ്രദിക്ഷിണം വളരെ ഭക്തിപൂർവം എന്നാൽ മനോഹരമായ ഒരാചാരമാണ് അതായത് പ്രദിക്ഷിണമെന്ന് പറയുന്നത് അതായത് വിശുദ്ധരുടെ രൂപങ്ങൾ വിശുദ്ധ മാതാവ് ഈശോ അല്ലെങ്കിൽ വിശുദ്ധരുടെ രൂപങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മൾ ഭക്തിപൂർവ്വമായിട്ട് നമ്മളെ ആവശ്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് അണിനിരത്തി അതായത് അവിടെയുള്ള ജനങ്ങളെ രണ്ടു വരികളായിട്ട് ഏറ്റവും മുകളിൽ വാതിൽ അത് ഏത് ഈ തിരിപിടിച്ച ആൽത്താര ബാലന്മാരും അല്ല അവരും പുറകിലാണ് അവരാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഏറ്റവും കുരുശ് മാർത്തോമാ കുരുശും വഹിച്ചുകൊണ്ട് പിന്നെ വാധ്യമേളങ്ങളായി തിരികളിൽ രാത്രി തിരികൾ തെളിച്ചുകൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയോടെ അതായത് പാട്ടുകളൊക്കെ പാടി ലുത്തിനിയപോലത്തെ പാട്ടുകളക്കെ പാടി രൂപങ്ങൾ ഉണ്ട് ചുമന്നുകൊണ്ട് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രൂപങ്ങൾ ചുമന്നുകൊണ്ടുപോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിലാണ് പെരുന്നാളന്ന് നടത്തുന്നത് അപ്പം പുറകിലായിട്ട് തിരികൾ തെളിച്ച് അൽത്താര ബാലന്മാരും പുരോഹിതന്മാരും ഇത് ചെയ്യുന്നവരുണ്ട് അപ്പം അവിടെ പ്രദിക്ഷിണം എന്നു പറഞ്ഞാൽ ഭയങ്കര ഭക്തിയായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെതന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കലാപരിപാടികൾ മെയിനായിട്ട് ഞങ്ങളാണ് ഗാനമേളകളാണ് വെളിയിൽ നിന്നുള്ള റ്റീമുകൽ ഗാനമേളയ്ക്കായിട്ട് ക്ഷണിച്ച് അവരൊരു നല്ലൊരു പെർഫോമൻസ് അപ്പം അവിടെയുള്ള ജനങ്ങൾക്ക് ആൾക്കാർക്ക് നല്ല രീതിയിൽ എഞ്ചോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഒത്തിരിയേറെ ആൾക്കാർ നല്ല രീതിയിൽ അത് എഞ്ചോയ് ചെയ്യുന്നതാണ് അപ്പം ഗാനമേളകളിലൊക്കെ നല്ല എഞ്ചോയ് അതുപോലെതന്നെ നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് പാഞ്ചാലിമേടെന്നു പറയുന്ന അതൊരു ടൂറിസ്റ്റ് പ്ലേസ്സാണ് അവിടെ ഞങ്ങൾ മെയിനായിട്ട് അവിടെയൊരു ചെറിയ അമ്പലം ഉണ്ട് അത് അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ തീർത്ഥാടകരിൽ നിന്ന് അത് കാണുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഞങ്ങൾ മെയിനായിട്ട് കാണുന്ന മകരവിളക്ക് മകരവിളക്കെന്നു പറഞ്ഞാൽ ഒരു ആചാരം അവിടെ നടക്കുന്നുണ്ടപ്പം ആ ആചാരത്തിൽ നമ്മൾ ഇത് മത അതിത് മതഭേദമന്യേ അതായത് മതങ്ങൾ നോക്കാതെ തന്നെ നമ്മളവിടെ മകരവിളക്കിനാവശ്യമായിട്ടുള്ള ആചാരങ്ങളും ആചാരങ്ങൾ സഹായങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും ക്രിസ്ത്യൻസായ നമ്മൾ സഹായം ഇപ്പം ചുക്ക് കാപ്പി വിതരണം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അവർക്കാവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മളവർക്കുവേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത് മകരവിളക്ക് അയ്യപ്പഭക്തന്മാർ ഹിന്ദുക്കൾക്ക് നമ്മളവർക്ക് വേണമെങ്കിൽ മകരവിളക്ക് തിരി തെളിയിക്കുന്നതിനുള്ള ക്രമീകരണൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ സഹായിക്കാൻ ക്രിസ്ത്യൻസാണ് മെയിനായിട്ട് സഹായിക്കാറുള്ളത് അപ്പം അത് അവർ മതസൗഹാർദ്ദത്തെയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളപ്പം ഇതാണ് എൻ്റെ കാഴ്ചപ്പാടിലുള്ള നാട്ടിൽ നാട്ടിൽ മെയിനായിട്ട് നല്ല രീതിയിൽ നടക്കണ രണ്ടാഘോഷങ്ങൾ എന്നാൽ ഇതാണ് എനിക്ക് പറയാനുള്ളത്